പ്രകൃതി ദൃശ്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കാന് ഇഷ്ടം തോന്നുന്നത് ഇപ്പം നമ്മൾ യാത്ര പോകുമ്പോഴായാലും ന്നെ പിന്നെ നമ്മൾ വീട്ടിൽ നില്ക്കുമ്പോഴായാലും പെട്ടെന്ന് ഇങ്ങനെ രാവിലെ ഒക്കെ എഴുന്നേല്ക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞുമൂടി ഒക്കെ അപ്പുറം ഒക്കെ കാണാന് പറ്റാത്ത വിധത്തിൽ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് എടുക്കാന് തോന്നും പിന്നെ ചില ദിവസങ്ങളിൽ വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യ ആകുന്ന നേരത്ത് ആകാശം ഒരു പ്രത്യേക ഓറഞ്ച് കളറിലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പം അതൊക്കെ പെട്ടെന്ന് ക്യാമറയിലെടുക്കാനായിട്ട് തോന്നും പിന്നെ കടൽ കടലിൽ ഉള്ള അസ്തമയ സൂര്യന് അത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണെന്ന് താണ് എനിക്ക് തോന്നുന്നത് അപ്പം അതെടുക്കാന് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മലകൾ പാറക്കെട്ടുകൾ അത് പിന്നെ പൂക്കൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ചെടികൾ പൂക്കൾ പിന്നെ ബട്ടര്ഫ്ലൈ അതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തേത് പ്രകൃതിയിൽ കാണുന്നത് എന്തും ഇങ്ങനെയുള്ള വളരെ ഇന്ട്രസ്റ്റിങ്ങായിട്ടുള്ള കാര്യങ്ങൾ അത് എടുക്കാനാണ് എനിക്കിഷ്ടം പിന്നെ അത് എടുത്തിട്ട് ഞാന് എന്റെ വാട്ട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടും അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങായിട്ട് തോന്നുന്ന പിച്ചേഴ്സും ഞാൻ അങ്ങനെ ഇടാറുണ്ട് പിന്നെ പിന്നെ ഞാന് എടുക്കാന് ഇഷ്ടപ്പെടുന്നത് അത് എന്തെങ്കിലും ഒരു ഈവന്റ്സ് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ റീലേറ്റീവ്സിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് സിൻഗിൾ ആയിട്ട് എന്റെ മാത്രം സെല്ഫി എടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടം ഇല്ലാത്തൊരു കാര്യമാണ് എനിക്കിങ്ങനെ കൂട്ടമായിട്ട് അവരെ കൂടെ ഒപ്പം നിന്ന് ഇപ്പം റീലേറ്റീവ്സിന്റെ ആയാലും ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കുക അതൊക്കെ നമ്മുടെ ഒരു മെമ്മറി ആണ് ഒരു കാലത്ത് അത് കുറച്ച് നാൾ കഴിയുമ്പം അത് മെമ്മറി ആണ് അതിപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ച് വെയ്ക്കാനായിട്ട് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാന് ഇഷ്ടമാണ് പിന്നെ ഞാനീ പ്രകൃതി ദൃശ്യങ്ങൾ കൂടുതലും എടുക്കുന്നത് എടുത്തിട്ട് ഞാൻ രാവിലെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഗുഡ് മോര്ണിംഗ് ആയിട്ട് ഞാന് അയയ്ക്കുന്നത് ഈ ഫോട്ടോസ് ആണ് ഈ ഫോട്ടോസിൽ ഗുഡ് മോര്ണിംഗ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ആണ് ഞാനവര്ക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പം എനിക്കും കാണാം എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ ഞാൻ ഗുഡ് മോര്ണിംഗ് അയയ്ക്കുന്ന എന്റെ ഫ്രണ്ട്സിനും വിഷ് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സിനും ഇത് കാണാനായിട്ട് പറ്റും അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതായത് പ്രകൃതി ദൃശ്യങ്ങൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയും റീലേറ്റീവ്സിന്റെ ഒക്കെ ഒപ്പം ചില സമയം ചിലവഴിക്കാന് പറ്റുമ്പം എടുക്കാന് പറ്റുന്ന എടുക്കുന്ന ഫോട്ടോസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്